പണ്ടുകാലത്തൊക്കെ നമ്മുടെ കലാപങ്ങളൊക്കെ ഇഷ്ടം പോലെ പല പല സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെക്കാലത്തതൊന്നുമില്ല അതൊക്കെ എല്ലാം സമാധാനപരമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് എന്നാലും ഇന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഉള്ള ആളുകൾക്ക് ഇപ്പോഴും സഹായനിധികളും അവരുടെ സമുദായത്തിൽപ്പെട്ട ആൾ ആ പള്ളികളിൽ നിന്നാണെങ്കിലും അവരുടെ സമുദായത്തിൽപ്പെട്ട ഒരു കോളേജോ സ്കൂളോ അങ്ങനെയെന്തെങ്കിലുമാണെങ്കിൽക്കൂടിയും ആ സമുദായത്തിപ്പെട്ട കുട്ടികൾക്കൊരു പ്രത്യേക പ്രോത്സാഹനമായിട്ട് തന്നെ എന്തെങ്കിലും അനുവദിച്ച് കൊടുക്കുകയും എന്തെങ്കിലും ആ ഫണ്ടുകളനുവദിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്കോളർഷിപ്പോ അങ്ങനെയെന്തെങ്കിലുമൊക്കെ അനുവദിച്ചുകൊടുക്കാനുള്ളത് അവരുടെ സമുദായത്തിൽ നിന്ന് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാറുണ്ട് ഹിന്ദു സമുദായത്തിലാണെങ്കിലങ്ങനെയൊന്നുമില്ല അപ്പം പല സമുദായങ്ങളും പല തരത്തിലുള്ളതാണ് ഇപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ടാലും അങ്ങനെയുള്ള ഒരു അനു അനുവദനീയമായിട്ടുള്ള സ്കോളർഷിപ്പുകളോ അങ്ങനെയുള്ള ഫെസിലിറ്റീസോ ഒന്നും ആ സമുദായത്തിപ്പെട്ട ആളുകൾക്കോ കൊടുക്കുന്നില്ല ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അത് അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുവെച്ചാൽ സ്കോളർഷിപ്പുപരമായിട്ട് പൈസ ആയിട്ടും സ്കൂളിലാണെങ്കിൽ അവർക്കിപ്പം പഠിക്കാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഇപ്പം കുടുംബത്തിൽ ഒരു താഴ്ന്ന കുടുംബത്തിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹായ ധന സഹായപരമായിട്ടാണെങ്കിലും അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിക്കാറുണ്ട്